ആ പറഞ്ഞോ ചേട്ടാ ആ പറഞ്ഞോളൂ അതിലെ വാട്ടർ ടാങ്കിലെ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇത് എവിടെയാണ് പണിയേണ്ടത് വീട്ടിൻ്റെ മുകളിലാണോ അതോ നമുക്ക് സെപ്പറേറ്റ് പില്ലർ ഇട്ടു പണിയണോ ഇപ്പോൾ പതിനയ്യായിരം ലിറ്ററിൻ്റെ പതിഞ്ചായിരം ലിറ്ററെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മൂന്ന് ഒരു എട്ട് പത്ത് ദിവസത്തിൻ്റെ പണി വരും അതിപ്പോൾ വർക്കേഴ്സിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് ആൾക്കാർ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ നോക്കാം ഇപ്പോൾ ഒരു വർക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക അത് കഴിഞ്ഞിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തീർക്കാൻ നോക്കാം നമുക്ക് ഒരു പത്തിരുപതു വർക്കേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാമല്ലോ ആ അത് ഓക്കേ ഓക്കേ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തരാം ഇനി ഇപ്പോൾ ഇതിനിപ്പോൾ കല്ലും മെറ്റലും മണലുമൊക്കെ അതിപ്പോൾ എന്താ നിങ്ങൾ അടിക്കുമോ അതോ ഞങ്ങൾ ഓക്കേ നമുക്ക് ഇപ്പോൾ ഒരു നാലഞ്ച് യൂണിറ്റ് വേണ്ടിവരും ഓക്കേ അപ്പോൾ അത് ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇത് ഇറക്കിയാൽ മതി പിന്നെ നമുക്ക് അവൈലബിലിറ്റി നോക്കി നമുക്ക് വേണമെങ്കിൽ പിന്നെ അടുത്തത് ഇറക്കിയാൽ മതി ഓക്കേ നമുക്കിപ്പോൾ മാക്സിമം സ്റ്റാർട്ട് ചെയ്യാം നേരത്തെ തന്നെ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് അത് വെള്ളം സംഭരിക്കാൻ മഴവെള്ളം താഴണ പോലെ വേണോ അതോ മുകളിൽ ഇതാക്കണോ അതോ ഷീറ്റ് ഇടണോ ആ അല്ലാ നമുക്ക് മുകളിൽ വാർക്കണോ അതോ ഷീറ്റ് ഇടണോ ടാങ്കിൻ്റെ മുകളിൽ വാർക്കണം അല്ലെ ഓക്കേ അപ്പോൾ മുകളിൽ ആ അത് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഇത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഒരു നാല് രണ്ടു ലക്ഷം അതിൻ്റെ അടുത്ത് വരും നമുക്ക് ഇനി ഇപ്പോൾ എന്താണ് അവസ്ഥ അറിയില്ല നമുക്ക് മാക്സിമം അതിനുള്ളിൽ ചെയ്ത് തരാം അത്രയും വരില്ല എന്നാലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം അപ്പോൾ നമുക്കിപ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം അത് ഓക്കേ ആ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ അതോ ഞങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഓക്കേ ഓക്കേ ഓക്കേ അപ്പോൾ ഞാനെന്നാൽ രണ്ട് ദിവസം രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് നിങ്ങളെയൊന്ന് വിളിക്കാം അപ്പോൾ നിങ്ങൾ അവിടേക്ക് വന്നാൽ മതി സൈറ്റിലേക്ക് കല്ലും മണലുമൊക്കെ അടിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ അപ്പോൾ വന്നിട്ട് ഇനി ഓടാൻ നിൽക്കണ്ട ഓക്കേ ശരി